നമസ്കാരം നമസ്കാരം സാറെ എൻ്റെ പേര് ജോസഫെന്നാണേ സാറെ ഒരു നാലു മാസം മുമ്പ് എൻ്റെ ഒരു ഫോൺ മിസ്സായിട്ട് ഞാൻ ഒരു കമ്പ്ലൈൻറ്റ് പോലെ തന്നിട്ടുണ്ടായിരുന്നു ആ ആ അതേ സാറേ ജോസഫ് വർഗ്ഗീസ് പിന്നെ ഡേറ്റ് വേണോ സാറേ അതോ ഫോണിൻ്റെ പേര് പറഞ്ഞാൽ മതിയോ സാറേ ഐ ഫോൺ തേട്ടി ഐ ഫോൺ തേട്ടി ആ ഇവിടെ നിന്നു തന്നെ എടുത്തതാണ് അതു കൊണ്ട് കുഴപ്പമൊന്നുമില്ല സാറെ സാറെ സാറൊന്നും വിചാരിക്കണ്ട നമ്മളീ സാറെ നമ്മൾ ഇ എം ഐ എടുത്ത ഫോണാണ് സാറേ സാറിൻ്റെ പരിധിയിലുള്ള ആ രീതിയിലാണെടുത്തത് അത് നം അത് സ്റ്റേഷനിലോട്ട് വരുന്ന നമ്മൾ വെള്ളമെടുക്കാൻ വരുന്നതിൻ്റെ തൊട്ടപ്പുറത്തു വെച്ചാണ് അത് സാറെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയത് സാറിൻറ്റെയൊക്കെ സ്റ്റേഷനിൽ നിന്നും അൻപത് മീറ്ററിൻ്റെ ഇപ്പുറയാണ് സാറേ ഓ സ്വന്തം ആ സാറെ നിങ് സാറെ നിങ്ങൾ എന്തര് സാറെ നിങ്ങൾക്ക് കേസ് വേണോ നമുക്കറിയാം സാറേ സാറൊക്കെ സൈബർ സെല്ലിൽ ഇട്ടിട്ടുണ്ടെന്നെനിക്ക് മനസ്സിലാകും സാറൊക്കെ സൈബർ സെല്ലിൽ ഒന്ന് പുഷ് ചെയ്താൽ മാത്രമേ നമുക്കത് അതൊന്ന് നമുക്ക് ഫോൺ കിട്ടത്തുള്ളൂ സാറേ ഒരു വർഷമെങ്കിലായിരുന്നത് നമുക്കതെങ്കിലുമുണ്ട് ഇത്രയും വലിയ പേക്ക് സാറേ നമ്മുടെ പാക്കേജ് സാറെ നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും സാറേ സാറൊക്കെ അങ്ങോട്ട് ഒരു സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച് ഒന്ന് ഒന്ന് ഒരു പുഷ് കൊടുത്താൽ നമുക്കത് കിട്ടിയേനെ സാറേ കാരണമിത്ര സെക്യൂരിറ്റിയുള്ള ഒരു ഫോണാണ് സാറേ ആ നമുക്കവിടെ ട്രാടെ ഹ് സാറേ അതു സാറിന് ചിരിക്കാം സാറേ ഇപ്പം നമ്മുടെ ഈ എം ഐയിൽ എടുത്ത ഫോണാണ് സാറെ നമ്മുടാഗ്രഹമുണ്ടായിട്ട് എടുത്തതാണ് നിങ്ങളത് വിചാരിക്കണം മ് അതെ സാറൊക്കെ ചിരിക്കുന്നതു പോലെ സാറിൻ്റെ ഫോൺ സാറിൻ്റെ ഫോ സാറിൻ്റെ ഫോൺ പോയിരുന്നത് സാറിപ്പം നോക്കാം നോക്കാമെന്നു പറയുമോ സാറേ അതു മനസ്സിലാക്ക് സാറൊന്ന് സൈബർ സെല്ലിലൊന്നു വിളിക്ക് സാറെ ഒന്ന് ഒന്നു വിളിക്ക് ആ ഒന്നു വിളിക്ക് സാറെ പറയും വിളിക്കാം വിളിക്കാമെന്ന് സാറെ ഹലോ സാറെ നമുക്ക് ഒരു ഡിപ്പാട്ട്മെൻറ്റിൽ വെച്ച് നമുക്ക് നമുക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ സാറെ ആ ജീ ഡി എൻട്രി ഒന്നു നമുക്ക് തരാൻ പറ്റുമോ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമുക്ക് ഡയറക്റ്റ് സൈബർ സെല്ല് താമസമെന്ത് സാറെ സാറൊക്കെ ഒന്നു വിചാരിച്ചാൽ അതു പറ്റും സാറേ മ് സാറെ നാളത്തേക്ക് മതിയാകും സാറേ അപ്പം അതൊന്നു വിളിച്ച് സാറൊന്ന് ഇന്ന് ത ഒന്ന് അവരെയൊന്നു വിളിക്കാൻ പറ്റുമോ സാറേ സാറേ നാളെ ശനിയാഴ്ച്ച കൂടെയല്ലേ മ് ഇല്ല വി സാറെ ഒന്ന് ഇന്ന് ഒരു പ്രാവശ്യമെങ്കിലും അവരെയൊന്നു വിളിക്കുകയെന്നുറപ്പ് വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു ആ ആ അല്ല അപ്പം ഇന്ന് വിളി ഇന്ന് സാർ ഇപ്പം ഒന്ന് കോൾ അറ്റൻറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞിട്ട് കട്ടായാൽ ശേഷമൊന്നു വിളിക്കാമെങ്കിൽ വലിയ ഉപകാരം എന്തോന്ന് സാറെ സാറൊന്നു വിളിച്ചാൽ സാഹച സാറിനേ കുറിച്ച് വലിയ കമ്പ്ലൈൻറ്റ്സുമൊന്നുമില്ലാത്തതു കൊണ്ട് സാറ് അതാണ് സാരിനേത്തന്നെ വിളിച്ചത് സാറൊന്നു വെരിഫൈ ചെയ്യാമെങ്കിൽ അവിടെ വിളിച്ചിട്ടൊന്ന് ഒന്ന് ജസ്റ്റൊന്ന് സാറൊന്ന് പുഷ് ചെയ്താൽ മതി സാറെ ഓക്കെ ആ ഓക്കെ ഓക്കെ സാറേ ഏ അതേ സാറെ അതേ സാറേ ആ ഡീറ്റെയിൽസൊന്ന് സാറെ ഓക്കെ ഓക്കെ ശരി ശരി